ഞാൻ ഇടുക്കി ജില്ലയിലെ ഒരു വ്യക്തിയാണ് ഇടുക്കി ജില്ലയിലെ വ്യക്തി എന്ന നിലയില് എൻ്റെ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സർവകലാശാലകളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇടുക്കി ജില്ലേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുതൽ വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം നൽകുന്ന ഒരു ജില്ല കൂടിയാണിത് ഇവിടെ ധാരാളം സ്കൂളുകളും കോളേജുകളും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാമുണ്ട് സ്കൂളുകളെ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അതുപോലെതന്നെ സർക്കാരിൻ്റെ ഒത്തിരി സ്ഥാപനങ്ങളും നമുക്കിപ്പോൾ നിലവിലുണ്ട് അതെല്ലാം നല്ല രീതിയിലാണിപ്പോൾ നടന്നുപോകുന്നത് കുട്ടികൾക്കു വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന ഘടകമായി കാണുന്ന ഒരു ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ മറ്റേതു ജില്ലയിലെ പോലെ തന്നെ ഏറ്റവും കൂടുതല് ഒരു അടിസ്ഥാന ഘടകമായി കാണുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം ഇടുക്കി ജില്ല പ്രത്യേകിച്ച് കുറച്ചുംകൂടെ കേരളത്തിലെ മറ്റു ജില്ലകളെക്കാളിലും താഴെയുള്ള ജില്ലയാണെങ്കിൽപ്പോലും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഇപ്പോള് സ്കൂളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും എന്നു തന്നെയോണം അംഗന്വാടികളും സ്കൂളുകളുമുണ്ട് ഇപ്പോള് ഒരു കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞി ൻ്റെ വിദ്യാഭ്യാസ ഘട്ടം തുടങ്ങുന്ന കാലം മുതലേ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ അംഗന്വാടിയിൽ വിടാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഇടുക്കി ജില്ലയിലുണ്ട് അംഗന്വാടികൾ എന്നു പറഞ്ഞുകഴിഞ്ഞാൽത്തന്നെ എല്ലാവർക്കും ഏറ്റവും അടുത്തു പോകാൻ പറ്റുന്ന രീതിയിൽത്തന്നെ ഇഷ്ടം ധാരാളം അംഗന്വാടികൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിലുണ്ട് അങ്ങനെ അംഗന്വാടിയിൽ തുടങ്ങി പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്ന എൽ പി യു പി സ്കൂളുകൾ മുതൽ ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള കോളേജുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് എല്ലാ രീതിയിലുമുള്ള കോളേജുകള് ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കായികം എല്ലാ സ്ഥലത്തിലേക്കും ഉള്ള കോളേജുകളും നമുക്ക് ഇപ്പോൾ ഉണ്ട് കോളേജുകളില് അവരുടെ ഇനി നമ്മള് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെപ്പറ്റി പറയുമ്പോൾ അവിടുത്തെ പഠന രീതികളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് അതായത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റിയിട്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പഠനവും അവരെ പഠിപ്പിക്കുന്ന ഉയർന്ന നിലവാരമുള്ള അധ്യാപകരുമാണ് എല്ലാ സ്കൂളുകളിലും ഉള്ളത് പഠനത്തേക്കാളുപരി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടേതായിട്ടുള്ള എല്ലാ രൂപീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള അധ്യാപകരെത്തന്നെയാണ് നമ്മുടെ പ്രദേശങ്ങളിളേറ്റവും കൂടുതലായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളെ മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പഠന രീതിയാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലായിട്ടുള്ളത് അവർക്കു ജോലി അധിഷ്ഠിതമായ പഠനങ്ങളും എല്ലാം ഇപ്പോൾ നൽകുന്നുണ്ട് ജോലി അധിഷ്ഠിതമെന്നു പറയുമ്പോൾ അവരുടെ ഒരു പ്രാഥമികവിദ്യാഭ്യാസം കഴിഞ്ഞുകഴിയുമ്പോൾ അവർക്ക് ഏതു മേഖലയിലേക്കാണോ തിരിയേണ്ടത് ആ മേഖലയിലേക്കു തിരിയാൻപാകത്തിന് ഉതകുന്നവണ്ണമുള്ള ഒരു ഇത് രൂപീകരണമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഡോക്ടറാകണമെങ്കിലും എഞ്ചിനീയറാകണമെങ്കിലും എന്തു രീതിയിലാകണമെങ്കിലും അവർക്ക് അതിനുള്ള ഒരു അടിസ്ഥാന ഘടകം അവരെപ്പോഴും കൊടുക്കാനായിട്ടു ശ്രമിക്കുന്നുണ്ട് അതുപോലെതന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന രീതിയിലാണ് അതായതൊരു കുട്ടിയുടെ രണ്ടാം വീടാണ് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിലൊരു അവര് പഠിക്കുന്ന സ്കൂള് കോളേജ് എന്നു പറയുന്നത് അപ്പോള് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറെ നല്ല രീതിയിൽത്തന്നെ അവരെ പ്രാധാന്യം ചെലുത്തുന്ന ഒരു ഘടകമാണ് അവരുടെ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ അപ്പോള് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനും ഈ അദ്ധ്യാപകർക്കൊരു വലിയ പങ്കുണ്ട് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് തെറ്റു കണ്ടാൽ പറഞ്ഞു കൊടുക്കാനും അതു ചെയ്യരുത് എന്നവരെ മനസ്സിലാക്കിക്കൊടുക്കുവാനും എല്ലാം ഇവര് ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇവര് പഠിച്ച് കുറേ പഠിച്ച് എവിടെയൊക്കെയോ എത്തുന്നതിലുപരി അവർക്ക് നല്ല മനുഷ്യനാവുക എന്നുള്ളൊരു രീതിയിലും അല്ലെങ്കിൽ ഒരു അടിസ്ഥാന എല്ലാ രീതിയിലുള്ള മര്യാദകളും എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും അവരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതുപോലെ തന്നെ മത വിദ്യാഭ്യാസവും എല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും അവരുടെ സ്കൂൾ കോളേജ് കാലഘട്ടം അപ്പോള് അത് ഏറ്റവും നന്നായിട്ടു കൊടുക്കുക എന്നു പറയുന്നതൊരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കില് ഒരു ജില്ലയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് അതേറ്റവും നന്നായിട്ടു നിർവഹിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല എന്നു പറയുന്നതിലും ഒരു ഇടുക്കിയിൽ ജീവിക്കുന്നൊരാളെന്നു പറയുന്നതിലും ഞാനൊത്തിരി അഭിമാനിക്കുന്നു പ്രധാനമായിട്ടും ഇവിടെ സർവകലാശാല എന്നു പറയുന്ന നമുക്ക് കോട്ടയം യൂണിവേഴ്സിറ്റികൾ എം ജി യൂണിവേഴ്സിറ്റി ഉണ്ട് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട് നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഒത്തിരി യൂണിവേഴ്സിറ്റികളുള്ളൊരു സംസ്ഥാനമാണ് നമുക്ക് ഇത് അത് കൂടാതെ തന്നെ സെൽഫ് ഇതായിട്ട് വർക്കെയ്യുന്ന യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും പ്രൈവറ്റും ഗവൺമെൻറ്റ് എയ്ഡഡ് സ്കൂളുകളും എല്ലാം നമുക്ക് ഇപ്പോളുണ്ട് അവരുടെ നേട്ടങ്ങൾ എന്നു പറയുന്നത് ഒത്തിരി രീതിയിലിപ്പോള് കുട്ടികളുടെ പഠന രീതിയില് മാത്രമല്ല കലാകായിക രംഗത്തും അവർക്കു കുട്ടികൾക്കും മെച്ചപ്പെടുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒരുക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോള് ഒരു കുട്ടിയുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്ക് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്